തീർച്ചയായും ഇങ്ങനത്തെ പദ്ധതികൾ കൊണ്ട് വരുമ്പോൾ ഒരുപാട് ഉപകാരങ്ങളാണ് ഉണ്ടാവുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ കുറെ കാര്യങ്ങൾ അറിവ് നേടാനും ഈ ലാപ്ടോപ്പുകൾ കൊണ്ട് കുറെ ഗുണങ്ങളുണ്ടാകും പിന്നെ അത് മാത്രമല്ല സ്ത്രീകൾക്ക് എന്തായാലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാൻ സഹായിക്കുന്നതാണ് പുരുഷന്മാർ മാത്രം പഠിക്കുന്നതിൽ അല്ല കാര്യം ഉള്ളത് നമ്മളെ ഇന്ത്യയിലുള്ള ഓരോരുത്തരും അറിവ് നേടണമെന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്